പാട്ടു പാടും എന്നുള്ളതുകൊണ്ട് ഭാവിയിലേക്കൊരുപാട്ടുകാരിയായി തീരണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല പക്ഷേങ്കില് എൻ്റെ മക്കളെയൊക്കെ പാട്ട്പഠിപ്പ പാട്ടിനോടൊരു ഇഷ്ടം വരുത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളു പാട്ടുകൊണ്ട് പാട്ടു പാടി പാട്ട് പഠിപ്പിക്കണം ഒരു പാട്ടു ടീച്ചറായി പ്രവർത്തിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഇത് പാടാനിഷ്ടമാണ് പാട്ടുകേൾക്കാനിഷ്ട്ടാണ് പാട്ടു ആസ്വദിക്കും എൻ്റെ കൂടെ ഉള്ളവരുടെ കൂടെ ഇരുന്നു പാട്ടുപാടും അല്ലാതെ പുറമെ പുറമെയൊരു സ്റ്റേജ് ഷോയിൽ പോയ് പാടാനോ അങ്ങനെയുള്ള ആഗ്രഹളൊന്നും എനിക്കില്ല